വളരെ ചെറുപ്പം തൊട്ടേ നൃത്തം അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ നൃത്തം എന്നു പറയുമ്പോൾ ക്ലാസിക്കൽ കലാരൂപമാണ് ഞാൻ തിരഞ്ഞെടുത്തത് അഞ്ചു വയസ്സുള്ളപ്പോൾ ഭരതനാട്യം എന്ന നൃത്ത രൂപത്തിലൂടെ തുടങ്ങി മോഹിനിയാട്ടവും കഴിഞ്ഞ് ഇപ്പോൾ ഇരുപതാം വയസ്സിൽ കുച്ചിപ്പുടി എന്ന കലാരൂപത്തിൽ എത്തി നിൽക്കുന്നു ഈ പതിനാല് കൊല്ലം കൊണ്ട് നീ ഒരു തികഞ്ഞ കലാകാരിയായി തീർന്നോ എന്ന് എന്നോടാരെങ്കിലും ചോദിച്ചാൽ ഉറപ്പായും ഞാൻ പറയും ഇല്ല ഒരിക്കലും ഞാനൊരു കല കാരിയായി തീർന്നിട്ടില്ല ഒരു തികഞ്ഞ കലാകാരിയായി തീർന്നിട്ടില്ല കാരണം ഇനിയും ഞാൻ ഒരുപാട് പഠിക്കാൻ കിടക്കുന്നു ഇത്രെയും കൊല്ലം ഞാൻ നൃത്തം അഭ്യസിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു സ്വപ്നമാണ് കേരളാ കലാമണ്ഡലത്തിൽ നിന്ന് ഒന്ന് പഠിക്കണം എന്നുള്ളത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഈ ചിന്ത ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഒന്ന് ചിന്തിച്ചു എന്തുകൊണ്ടെ് എനിക്കങ്ങനെ ചെയ്തുകൂട പക്ഷെ അന്ന് എനിക്കതിനു സാധിച്ചില്ല പക്ഷെ ആ ആഗ്രഹം ഭയങ്കര തീവ്രമായിട്ടെൻ്റെ മനസ്സിൽ കിടന്നതു കൊണ്ടാകാം ഇപ്പോൾ എനിക്ക് കുച്ചിപ്പുടി ഒരു ഡിപ്ലോമ കേരള കലാമണ്ഡലത്തിൽ നിന്ന് എടുക്കണം എന്നുള്ള ആഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിൽ ഉദിച്ചു വന്നത് അതും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേറെയും ചില ആഗ്രഹങ്ങളുണ്ട് ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷപ്പെടുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഒരുപാട് വേദി കിട്ടണമെന്നും എനിക്കാഗ്രഹമുണ്ട് ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ച് വേദികൾ കിട്ടിയെങ്കിൽ പോലും അതല്ലാതെ എനിക്ക് കുറച്ചു വേദികൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് മഹാ ശിവരാത്രി രാത്രി കുറെ കലാകാരികൾ ശിവൻ്റെ മുന്നിൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ദിവസം എനിക്കും ചെയ്യാൻ പറ്റും എന്ന് അതിനും എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയാണ് മൂകാംബിക ദേവിയുടെ മുന്നിലും കുച്ചിപ്പുടി എന്ന നൃത്ത രൂപം അവിടെ അവിടെ കാണി ഒന്ന് ദേവിയുടെ മുന്നിൽ കാണിക്കണമെന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്രീകൃഷ്ണൻ്റെ മുന്നിലും അതായത് ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ ഒന്ന് നൃത്തം ചെയ്യണം എന്നുള്ളത് ഇതൊക്കെ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ നന്നായി ആഗ്രഹിക്കുന്നു